എഡാ ഡാ അഭിഷേക് ഡാ ഇങ്ങ് വന്നേ ഡാ ഡാ ഞാൻ അടുത്ത ദിവസം ഒരു മീറ്റിങ്ങിന് ബിസിനസ് മീറ്റിങ്ങിനായിട്ട് ഒരു ഇതിന് പോവാർന്ന് ഒരൂ എന്നാ ഒരൂ യാത്ര പോവന്ന് അപ്പം എനിക്ക് ട്രെയിൻ ടിക്കറ്റിന് നിരക്ക് എത്രയാന്ന് ഒന്ന് അറിയാൻ പറ്റുമോ ഏഹ് അത് ഒന്ന് അറിയുമായിരുന്നെങ്കിൽ നമുക്ക് അതിനെ പറ്റി ഒന്ന് നിക്ക് ഒന്ന് കണക്ക് കൂട്ടാനാണ് എത്ര ബിസിനസ് ഒരു മിസ്നസ് മീറ്റിങ അപ്പം യാത്ര ചെയ്യുന്ന എത്ര എത്രത്തിലാണ് ഉണ്ടാവുന്ന കണക്ക് കൂട്ടാൻ മതിയാ ഏകദേശം ഒരു കണക്ക് എത്തിക്കാൻ വേണ്ടീട്ടാണ് അപ്പം അതിനെ പറ്റി ഒന്ന് പറയാവോ അപ്പം ഞാൻ ഈ വരുന്ന മുപ്പതാം തീയതീ ഡെൽല്ലിക്കാ പോവുന്നത് അപ്പോൾ രണ്ട് ദിവസം എന്നായാലും പിടിക്കുവായിരിക്കും ട്രെയിൻൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റന്നുള്ള ചാർജസ് ഇല്ല അപ്പം അതു കൊണ്ടാണല്ലോ ഞാൻ ട്രെയിൻ ടിക്കറ്റ് യൂസ് ചെയ്യണത് ആ ട്രെയിൻ യൂസ് ചെയ്യണത് കുഴപ്പമില്ല എനിക്ക് അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് എന്നാ പണിയൊന്നുല്ല ഒരു ഏഴ് ഒരു ആഴ്ചത്തേക്കെന്നായാലും ഫ്രീ ഫുഡ് സ്റ്റേയൊക്കെണ്ട് അപ്പം അതുകൊണ്ട് അവിടെ എനിക്ക് വലിയ കാര്യമായിട്ട് നോക്കണ്ട വരത്തില്ല അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള ചിലവ് ഷേ ഏകദേശം ഫുഡ് എനിക്ക് ഫ്രീയാന്നാണ് എനിക്ക് തോന്നണത് എനിക്ക് തോന്നണു അക്കോമഡേഷനുള്ള അവിടെ ഒരു അക്കമഡേഷൻണ്ട് ഫുഡിന് മാത്രം പൈസ കൊടുത്താൽ മതി ഈ അക്കൊമഡേഷൻ ഫ്രീയാണ് അപ്പം അവിടെ ഒരു ഹോട്ടല്ല് അക്കമഡേഷൻ ഉണ്ട് അപ്പോൾ അത് കൊണ്ട് ഇനി അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം എനിക്ക് ഇവിടന്നങ്ങോട്ടുള്ള ട്രെയിൻ ടിക്കറ്റും തിരിച്ചല്ല ട്രെയിൻ ടിക്കറ്റും അത്പോലെ തന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കണ്ട ആവശ്യമുള്ളു അപ്പം അതിന്റെ ഒരു നിരക്ക് എത്ര ആകും എന്നുള്ളത് ഒന്ന് അറിയും ആയിരുന്നെങ്കിൽ നമുക്ക് കൊള്ളാമായിരുന്നു